ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ജാക്കറ്റ് ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോള് അവിടുന്നു കുറച്ചുകഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞതിനുശേഷം ഒരു ജാക്കറ്റ് ഓർഡർ ചെയ്തു പിന്നെ അവിടുന്ന് അന്നൊക്കെ എനിക്കു നല്ലതായിട്ടു തോന്നി പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോള് ഞാനിങ്ങനെ ആലോചിച്ചപ്പോള് എനിക്കാ ജാക്കറ്റ് ശരിയായി തോന്നിയില്ല കാരണം അതില് ഞാന് അതിൻ്റെ പ്രൈസ് നോക്കിയപ്പോൾ അതിനു വില കൂടിയതാണ് പ്രൈസ് പിന്നെ അതിൻ്റെ സൈസ് പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിലൊന്നും കൂടെ ആപ്പില് കയറി നോക്കിയപ്പോള് അതില് എന്താണു പറയുക സൈസും കൂടുതലാണ് അപ്പോള് എനിക്കത് മാച്ചായി തോന്നിയില്ല പിന്നെ ഡെലിവറി ഡേറ്റ് നോക്കിയപ്പോള് കുറേ കഴിഞ്ഞു കഴിഞ്ഞു വൈകിയിട്ടാണ് ഡേറ്റും കാണിക്കുന്നത് അപ്പോള് ഞാനത് ക്യാൻസല് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോള് അപ്പോള് നോക്കി ഞാനത് ഡെലിവേഡ് പക്ഷെ ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് ക്യാഷ് അടയ്ക്കാത്തതുകൊണ്ട് ക്യാഷ് പോയില്ല പിന്നെ ഓൺലൈനില് അതുപോലത്തെ ജാക്കറ്റ് അടുത്ത വീട്ടിലെ ഒരാള് എന്താണ് അതേ ക്ലോത്തും അതിൻ്റെ ക്ലോത്തും ശരിയല്ല അതുപോലെ അവര് ഓർഡർ ചെയ്തുവരുത്തിയതിനുശേഷം അവരും പറഞ്ഞു അതിൻ്റെ ക്ലോത്ത് ശരിയല്ല അപ്പോഴാണു ഞാനത് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചത് പിന്നെ സൈസും വ്യത്യാസം നല്ലവണ്ണമുണ്ട് സൈസും അതില് നോക്കിയപ്പോള് കൂടിയിരിക്കുന്നു ഡെലിവറി ഡേറ്റും നല്ല വൈകിപ്പോയിരിക്കുന്നു പക്ഷെ നോക്കിയപ്പോള് ഷിപ്പ്ഡായിട്ടുണ്ടായിരുന്നു അപ്പോള് ആദ്യമെന്നുവച്ചാല് ആദ്യകാലത്തൊന്നും അത് പിന്നെ നമ്മള് ഓർഡർ ചെയ്താല് ക്യാൻസൽ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇപ്പോള് പിന്നെ അങ്ങനെ ഞങ്ങള് അതില് അഡ്രസ്സും ചേഞ്ച് ചെയ്യണ്ടതുണ്ടായിരുന്നു കൊടുത്ത അഡ്രസ്സല്ലായിരുന്നു അതും ചേഞ്ച് ചെയ്യേണ്ടതുണ്ടായിരുന്നു അപ്പോള് മൊത്തത്തിലൊരു അതൊരു ക്വാളിഫിക്കേഷൻ നല്ലൊരു ഇതായി തോന്നിയില്ല ആ ജാക്കറ്റ് ഇപ്പോള് ഓർഡര് ചെയ്തത് പക്ഷെ ആദ്യം അങ്ങനെ തോന്നിയപ്പോള് ഓർഡർ ചെയ്തതായിരുന്നു അതുകൊണ്ടൊക്കെ ക്യാൻസലെയ്യാന് അതു തീരുമാനിച്ചത് പിന്നെ എന്താണെന്നുവച്ചാല് അതിൻ്റെ ക്ലോത്തോ ഒന്നും നല്ലൊരു ലെവലായി തോന്നിയില്ല അതേ പ്രൈസും അതുപോലെ അതിന് ക്വാളിറ്റി അതൊന്നും അത്ര നല്ലതായിരുന്നില്ല അതുകൊണ്ടൊക്കെയായിരുന്നുഅന്ന് ക്യാൻസല് ചെയ്യാൻ ഞാനന്നു തീരുമാനിച്ചത് പിന്നെ വില പ്രൈസോ ഓവർ പ്രൈസായി തോന്നിയതു കാരണം അതിനെ അപേക്ഷിച്ചു വേറെയുള്ളതു വേറെ നല്ല രീതിയില് നമ്മള് വാങ്ങുമ്പോള് അത്ര വിലയൊന്നും തോന്നിയില്ല പക്ഷേ അന്ന് അതില് നല്ലൊരിതു തോന്നിയപ്പോഴാണ് അപ്പോള് അന്നു കണ്ടപ്പോള് ഫസ്റ്റ് നല്ലൊരു ക്വാളിറ്റിയൊക്കെ തോന്നിയപ്പോഴേ ഓർഡർ ചെയ്തത് പക്ഷെ പിന്നെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും പ്രൈസ് കൂടുതല്കൊണ്ടും പിന്നെ അതിൻ്റെ ക്ലോത്ത് ശരിയല്ലാത്തതുകൊണ്ടും സൈസ് വ്യത്യാസം വന്നതു കൊണ്ടൊക്കെയുമാണ് അത് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചത്